സ്പോർട്സ് കളിക്കുന്നതിലൂടെ കുട്ടികൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും അവരുടെ അവരുടെ ശാരീരികമായിട്ടുള്ള വികാസത്തിനും ബുദ്ധിപരമായ ഒക്കെ സ്പോർട്സ് ഉപയോഗപ്രദമാകും അവർക്ക് സ്പോർട്സ് ഭയങ്കര നല്ല ഒരു എഫക്റ്റീവ് ആണ് എല്ലാ വരും സ്പോർട്സ് ചെയ്യണം തന്നെ സ്പോർട്സ് ഏതേലും ഒരു സ്പോർട്സ് ഏതേലും ഒരു ഗെയിംസിൽ അവര് ഏർപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം സ്പോർട്സ് അത് ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് പല അസുഖങ്ങളും

അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ചിലവർ ബുദ്ധിമുട്ട് ഭയങ്കര കഷ്ടപ്പാടാണ് എന്നൊക്കെ പറഞ്ഞു കൊണ്ട് അതൊന്നും ചെയ്യാതിരിക്കും പക്ഷെ അത് അങ്ങനെ ഒന്നുമല്ല എല്ലാ എല്ലാ ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് അതുപോലെ തന്നെ ഈ സ്പോർട്സ് എന്നു പറയുന്നത് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാാവും എന്നാലും അതൊക്കെ നന്നായിട്ട് ചെയ്യുമ്പോഴാണ് അത് നല്ല എഫക്റ്റീവ് ആയിട്ട് തീരുന്നത്

സ്പോർട്സിനോടൊപ്പം തന്നെ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്നതും എക്സർസൈസ് ചെയ്യുന്നതും എല്ലാം

ഇതൊക്കെ ഭയങ്കരം നല്ല ഒരു

ജോലികൾ നല്ല നല്ല ജോലികൾ ഗവൺമെൻ്റ് അവർക്ക് ഓഫർ ചെയ്യുകയും ചെയ്യും നല്ല നല്ല നല്ല കുറേ സ്കോളർഷിപ്പുകളൊക്കെ ലഭിക്കുകയും ചെയ്യാനായിട്ട് അതിന് കാരണമാകും സ്പോർട്സ് നല്ല ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓരോ കുട്ടികൾക്കും ഓരോ മനുഷ്യർക്കും എല്ലാ മനുഷ്യർക്കും നല്ല സ്പോർട്സൊക്കെ ചെയ്യുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്

വളരെ നല്ല ഒരു എഫക്റ്റീവ് ആണ്